ചെടികൾ വളർത്താൻ നമ്മൾ മെയിനായിട്ടിപ്പോൾ കരിമണൽ ഉപയോഗിക്കുന്നുണ്ട് അതായത് പിന്നെ നമ്മൾ വേറെ ഉപയോഗിക്കണതെന്ന് പറഞ്ഞാൽ ചെമ്മണ്ണ് പിന്നെ നമ്മുടെ ആ ഇത് രണ്ടുമാണ് മെയ്നായിട്ട് ഉപയോഗിക്കണത് അതിൽ എന്താണെന്നുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലത് കരിമണല് ബ്ലാക്ക് സോയിലാണ് കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ ഓപ്ഷൻ എന്താണെന്നുവെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം കൂടുതൽ നേരം പിടിച്ച് വയ്ക്കാനുള്ള കഴിവ് ആ മണ്ണിനുണ്ട് പിന്നെ കുറച്ച് വളമിട്ടാൽ തന്നെ നന്നായിട്ട് ഫലഭൂഷ്ഠിത ഉള്ള ആയതുകൊണ്ടും അത് അത്യാവശ്യം വിളകൾക്ക് കൂടുതൽ യോജിക്കണ ഒരു ടൈപ്പ് മണ്ണാണ് എല്ലാ തരത്തിലുള്ള ചെടിയും നമുക്ക് മാക്സിമം തൊണ്ണൂറ് ശതമാനം ചെടികളും നമുക്കതില് വളർത്തിയെടുക്കാനും അതില് കൂടുതല് കായ് ഫലങ്ങളും ഇതൊക്കെ ഉണ്ടാക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ മിക്കവാറും ആൾക്കാരധികം നമ്മള് നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം എല്ലാ ആൾക്കാരും ഈ കരിമണല് അല്ലെങ്കിൽ ഇതൊക്കെയാണ് മെയ്നായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ടുവന്ന് അതില് തന്നെ അവർക്ക് ആവശ്യത്തിന് കൂടുതൽ എന്താ പറയുക ലാഭവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് വളമെന്ന് പറയണ രീതിയിൽ പറയുമ്പോൾ മറ്റേ പശൂൻ്റെ വളം ഉപയോഗിക്കാൻ പറ്റും കോഴിക്കാട്ടം അതുപോലെ പിന്നെ ആടിൻ്റെ അങ്ങനത്തെ ആട് ആട്ടുംകാട്ടം പിന്നെ എന്താ ഉപയോഗിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മള് മെയ്നായിട്ട് ഉപയോഗിക്കുന്നത് അതൊക്കെ നല്ല അത്യാവശ്യം നല്ല വളവും കാര്യങ്ങളുമാണ് അപ്പോൾ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലെ കാര്യങ്ങൾക്കൊക്കെ എന്താ പെട്ടന്ന് കിട്ടാനുള്ള കിട്ടാൻ പറ്റുന്നൊരു ടൈപ്പ് വളങ്ങളാണ് പിന്നെ നമുക്ക് ഈ കെമിക്കലായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ വളം ഇപ്പോൾ നോക്കണതെന്ന് പറയുമ്പോൾ യൂറിയ മെയ്നായിട്ട് ഇപ്പോൾ നാട്ടിലെല്ലാം കിട്ടണ സാധനമാണ് യൂറിയ അതുപയോഗിക്കാം പിന്നെ നമുക്കതില് വരണത് യൂറിയ കൂടാണ്ട് നമുക്ക് വേണങ്കി പിന്നെ വരണത് നമ്മുടെ അമോണിയ അമോണിയ സൾഫേറ്റ് അങ്ങനത്തെ വളവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ വരുന്നത് അതൊക്കെ അത്യാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്നാണ് ഒരു അഭിപ്രായം